ഹലോ ഇത് എം സ്റ്റോർസ് അല്ലേ

ആ അത് നിൽക്ക് ഞാൻ ലിസ്റ്റ് വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ലിസ്റ്റ് ഞാൻ അയയ്ക്കാം പിന്നെ നമുക്ക് പായസത്തിന് വേണ്ട കാ സാധനങ്ങളൊക്കെ എല്ലാം കൂടെ ഓർഡർ ചെയ്യുന്നതിന് എത്ര രൂപ ആവും ഓ അത് എത്ര ആവും അത് നമ്മൾ പ്രഥമ പ്രഥമൻ പായസം ആയാലും അട പായസം ആയാലും കുഴപ്പമില്ല ഏതെങ്കിലും രണ്ട് കൂട്ടം വേണം ആ ഓക്കെ ഓക്കെ ഓക്കെ ഹൗസ് വാർമിങ്ങ് ആവുമ്പോൾ ഒരു ഇരുനൂറ് ഇരുനൂറ്റി പത്ത് പേർ കാണും ഓ ഓ അപ്പോൾ

ആ ആ അപ്പം ഓക്കെ ഓക്കെ അപ്പം ഇത് ഇരുനൂറ് പേർക്ക് തികയില്ലേ ഇപ്പം നിങ്ങൾ സെർവ് ചെയ്യുമോ അതെ ആ നിങ്ങളെ ഇതിൽ വെച്ച് കൊടുക്കാനുള്ള ആൾക്കാർ അങ്ങനെ വല്ലതും ഉണ്ടോ ആ ആ അപ്പം ലൊക്കേഷൻ അയച്ചാൽ അയച്ചുതരുമല്ലോ അത് കൊണ്ട് തരുമല്ലോ ഓക്കെ ഓക്കെ പിന്നെ ഈ അരി അരിയും ബിരിയാണിയും സദ്യയും അത് രണ്ട് കൂട്ടം വേണം അത് ഓ അത് വേണം ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓ അപ്പം ഇതിൻറെ ആ ഓക്കെ ഓക്കെ

ഇത് ഒരു ഇരുനൂറ്റി പത്ത് പേര് ഇത് ഇരുനൂറ്റി പത്ത് പേർ ഓ പിന്നെ ഒരു ഇരുനൂറ്റി പത്ത് പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഇരുനൂറ്റമ്പത് ഉള്ള ഇത് വന്നാലും ഫുഡ് അല്ലേ വേസ്റ്റ് ചെയ്യേണ്ട അപ്പം ഒരു അതനുസരിച്ച് ആ തന്നാൽ മതി വലിയ അരി മതി വലിയ അരി മതി രണ്ടരയ്ക്ക് ഓക്കെ ഓ അപ്പം അത് മതി ഓ അപ്പം ബാലൻസ് വന്നാൽ നിങ്ങൾ തിരിച്ചെടുക്കുമല്ലോ ആ ഓക്കെ ഓക്കെ അത് അത് തന്നെ അപ്പോൾ അത് സെറ്റ് ചെയ്താൽ മതി അപ്പം ഈ പ്രൈസും കാര്യങ്ങൾ എങ്ങനെ ഗൂഗിൾ പേ അതോ നമ്മൾ കൊണ്ടുതരണോ ഓക്കെ ഈ ഷോപ്പ് ഇത് എവിടെയാണ് വരുന്നത് തിരുവനന്തപുരം ആണല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ കൊല്ലത്തുനിന്ന് നമ്മൾ വരാം നമ്മൾ ഷോപ്പിൽ വരാം ഒരു ദിവസം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്ട്സ്ആപ്പിൽ ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം ആ ഓ ഓ അത് ആ ഓക്കെ ഓക്കെ അപ്പോൾ അത് ഒന്ന് ഓഫർ ചെയ്ത് നിങ്ങൾ എല്ലാ പ്രൈസും കൂടെ കൂട്ടി നമുക്ക് അത് പറഞ്ഞാൽ വലിയ ഉപകാരം ആയിരുന്നു

ആ ആ അതൊക്കെ എടുത്തിരുന്നു എന്നാൽ പിന്നെ ഈ വേവിക്കാനുള്ള അതൊക്കെ എടുത്തിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇവിടെ പള്ളിയിൽ നിന്നാണ് വേവിക്കാനുള്ള ആ അത് ഞാൻ ഒന്ന് ചോദിച്ച് നോക്കട്ടെ വീട്ടിൽ ആ അതൊക്കെ ചോദിച്ച് നോക്കട്ടെ ഞാൻ ചോദിച്ച് നോക്കിയിട്ട് പറയാം ആ ഓക്കെ ഓക്കെ ഓക്കെ ആ സംസാരിച്ച് സംസാരിച്ചിട്ട് വിളിക്കാം ഓക്കെ ഓക്കെ ശരി